ഹലോ ആ അതെ ആ ഞാന് വിളിച്ചത് എന്താന്ന് വച്ച് കഴിഞ്ഞാല് ഞാന് നേരത്തെ അവിടുന്ന് ഭക്ഷണം ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഫ്രഷ് ആന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഭക്ഷണം തന്നത് പക്ഷെ ഇത് ഇത് ഫ്രഷ് അല്ല സംഭവത്തിന് നല്ല രീതിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ല എനിക്ക് വളരെ മോശായിട്ടുള്ള ഒരു ഭക്ഷണാണ് നിങ്ങള് തന്നത് കാരണം ഇങ്ങനെ ഒരാക്കും കൊടുക്കാൻ പാടില്ല ഞാനൊരു ഫുഡ് സേഫ്റ്റി ഓഫീസറെ വിട്ട് പറയാൻ വേണ്ടി ഇരുന്നതാണ് പക്ഷെ അതിനുമുന്നെ നിങ്ങളോടൊന്ന് പറയണന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങളിനി ആർക്കും ആ ഭക്ഷണം കൊടുക്കാൻ പാടില്ലല്ലോ അല്ല അല്ല നിങ്ങള് ഞാനൊരു ഫ്രഷ് ചിക്കനക്കെയാണ് ഓർഡറ് ചെയ്തത് പക്ഷെ ഫ്രഷ് അല്ല അതിനകത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് ഞാൻ മന്തിയാണ് ഓർഡറ് ചെയ്തത് അല്ല നിങ്ങള് ഇന്ന് ഇന്നുണ്ടാക്കിയതാണൊന്നല്ല എൻ്റെ ചോദ്യം ഇന്നുണ്ടാക്കിയതാണെങ്കിലും അതിനകത്ത് നിന്നു ഭയങ്കര സ്മെല്ലാണ് നമ്മളത് മുറിച്ച് പീസാക്കിയിട്ട് അത് വായില് വയ്ക്കാൻ നേരത്ത് ഭയങ്കര സ്മെല്ലാണ് അതിന് വരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സാധനമാണ് ഞാനത് ഡെലിവറി ബോയിൻറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതെ ഇനി അത് ആർക്കും കൊടുക്കാണ്ടിരിക്കുക ഇല്ലങ്കിൽ ഞാനത് പരാതിപ്പെടണ്ടി വരും ഓക്കെ